പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്ത് ഏഴ് രണ്ടായിരത്തി നാല് ആറ് ആറ് രണ്ടായിരത്തി നാല് ഏഴ് എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട്